ട്രാക്ടറുകളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഏത് തരം കമ്പനികളെ കുറിച്ച് എനിക്ക് ശരിയായിട്ട് അറിയാൻ മേല എൻ്റെ നിഗമനം ശരിയാണെങ്കിൽ ടാറ്റയ്ക്കും ബിർളയ്ക്കും ഒക്കെ ട്രാക്ടറുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എനിക്ക് ഉറപ്പ് അറിയില്ല എങ്കിലും ട്രാക്ടറുകളുടെ ഉപയോഗത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാം കാരണം പണ്ട് കാലത്ത് നമുക്ക് നമുക്ക് കൂടുതലും ഇൻ കൃഷി രീതിയാണ് ഉണ്ടായിരുന്നത് അഗ്രികൾച്ചർ കൃഷി രീതിയിൽ എല്ലാം നമ്മൾ ട് ട്രാക്ക് ആദ്യകാലങ്ങളിൽ കാള നിലം ഉഴുത് നിന്നത് കാള ആണെങ്കിലും പിന്നീട് അത് നിലം ഉഴുതാനായിട്ട് നമ്മൾ കുറച്ചു കൂടി ഒരു ഒരു ആദ്യകാലങ്ങളിൽ നിന്ന് പറയുമ്പോൾ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ വരെ ഒക്കെ നമ്മൾ നിലമുഴുതാൻ ട്രാക്ടറുകൾ നമ്മുടെ ഈ പ്രദേശത്ത് ഉപയോഗിച്ചിരുന്നില്ലെങ്കിൽ പോലും അന്ന് കൃഷിക്കായിട്ട് നമ്മൾ കാളകളും കലപ്പകളും ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത് പക്ഷേ പിന്നീട് എൺപതുകളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു തൊണ്ണൂറുകളൊക്കെ ആയപ്പോഴേക്കും അങ്ങും ഇങ്ങുമൊക്കെ ട്രാക്ടറുകളുടെ ഉപയോഗം വർദ്ധിച്ച് വരാൻ തുടങ്ങി അങ്ങനെ ട്രാക്ടറുകൾ കൂടുതലായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് കൂടുതലായും കണ്ടിട്ടുള്ളത് നിലങ്ങളിലാണ് അന്ന് കാലത്ത് നല്ല രീതിയിൽ ഈ പ്രദേശന് ഈ പ്രദേശങ്ങളെല്ലാം നല്ല രീതിയിൽ നിലം കൃഷി ഉണ്ടായിരുന്നു അപ്പോൾ വയൽ കൃഷി ഉണ്ടായിരുന്നു നെല്ല് കൃഷി ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ നെല്ലിന് നെല്ല് നട് നെല്ല് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിലം ഉഴുകുവാനും നിലം ഉഴുതുമറിച്ച് പാകപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ട്രാക്ടറുകൾ കൊണ്ടുവരുമായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രയോജനം വളരെ ആയിരുന്നുതാനും കാരണം കാളയെ കൊണ്ട് കർഷകൻ കലപ്പ വെച്ചും കാള വെ കാളയെ കൊണ്ട് കലപ്പ ഉപയോഗിച്ച് നിലം ഉഴുകുന്നതിന് ഉഴുകാൻ ഒരുപാട് സമയം എടുക്കുമായിരുന്നു അപ്പോൾ ഇത് സമയലാഭത്തിനും അപ്പം എത്ര നിലം ഉഴുതാലും അത്രമാത്രം പ്രയോജനവും ഇല്ലായിരുന്നു അതായത് ഒത്തിരി ഒത്തിരി ഉഴുതാലും കഷ്ടപ്പെട്ട് ഉഴുതാൽ പോലും നിലം അത്രമാത്രം പാകമായി വരില്ല വിത്ത് വിതയ്ക്കാൻ പാകമാകില്ല പക്ഷേ അതേ സമയത്ത് ട്രാക്ടറുകളിൽ ട്രാ ട്രാക്ടറുകളുടെ ഉപയോഗം വന്നപ്പോഴേക്കും സമയം ലാഭിച്ചു എന്നു മാത്രമല്ല നിലം നല്ല രീതിയിൽ ഉഴുതു മറിച്ച് കൃഷി ചെയ്യാൻ പാകത്തിന് ആകത്തക്ക രീതിയിൽ ആക്കാനായിട്ട് ട്രാക്ടറുകൾ സഹായകമായി അപ്പോൾ പരമ്പരാഗത കൃഷി രീതികൾക്കാണ് കൂടുതലും ട്രാക്ടറുകൾ ഉപയോഗിക്കുന്നത് പല രീതിക്ക് എനിക്ക് എൻ്റെ അറിവിലുള്ള ട്രാക്ടർ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് എനിക്കുള്ള അറിവ് ഈ കൃഷിക്ക് മാത്രമാണ് നിലം ഉഴുത് മറിച്ച് കൃഷി ചെയ്യാനും പുഞ്ച കൃഷിക്ക് ആയാലും അല്ലാതുള്ള പാടം കൃഷികൾക്ക് എല്ലാ ട്രാക്ടറുകളുടെ ഉപയോഗം നല്ലതാണ് പിന്നെ ഇപ്പോൾ ട്രാക്ടറുകൾ പഴയ കാലത്ത് ആ ഒരു ക ഉപയോഗം മാത്രമേ എനിക്ക് അറിയുള്ളായിരുന്നു അതായത് നിലത്ത് നിലങ്ങൾ കൃഷി ചെയ്യുന്നതിന് വേണ്ടി മാത്രം ട്രാക്ടറുകൾ ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് മാത്രമായിരുന്നു അറിവെങ്കിൽ ഇപ്പോഴത്തെ ഈ ആധുനിക കാലത്തിൽ കുറേ മാറ്റം ഉണ്ടായി അപ്പം കരയിലും ട്രാക്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട് കരയിൽ മണ്ണ് മാന്താനായിട്ടും അതുപോലെ എനിക്ക് തോന്നുന്നു പാറ ക്വാറികൾ പാറ ഖനനം ഇതിനെല്ലാം ട്രാക്ടറുകൾ ഉപയോഗിക്കുന്നു എന്ന് തോന്നുന്നു പാ പാറ ക്വാറികളിൽ ട്രാക്ടറുകളുടെ ഉപയോഗം ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം അത് നിഗമനം ശരിയാണോ എന്നറിയില്ല പോവുന്നത് കാണാം പക്ഷേ അതേ സമയത്ത് അല്ലാതെ ട്രാക്ടറുകൾ ഉപയോഗിക്കുന്നത് കര കരയിൽ ഉപയോഗിക്കുന്നത് കൂടുതലും ഈ റബ്ബർ കൃഷി ഉള്ള മേഖലകളിൽ ഉപയോഗിക്കുന്നത് കാണാറുണ്ട് റബ്ബർ കൃഷി കഴിയുമ്പോൾ അവർ ടെ റബ്ബർ നിൽ റബ്ബർ കൃഷി ചെയ്തിരുന്ന സ്ഥലത്ത് റബ്ബറിൻ്റെ കാലാവധി കഴിയുമ്പോൾ അത് ഷ് സ്ലോട്ടർ കൊടുത്ത് വെട്ടിക്കഴിഞ്ഞ് മരമൊക്കെ മുറിച്ചു മാറ്റിയതിന് ശേഷം ആ നിലം തരിശായിട്ട് കിടക്കുമ്പോൾ അടുത്ത റബ്ബർ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ തറ ആ മണ്ണിനെ നന്നായിട്ട് ഇളക്കി മറിച്ചിട്ടുവാണ് വീണ്ടും റബ്ബർ കൃഷി വീണ്ടും ചെയ്യുന്നത് അപ്പം ആ ആ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ട്രാക്ടർ ഉപയോഗിക്കുന്നതായിട്ട് എനി ഞാൻ എനിക്ക് കണ്ട് ചെറുതായി ട്രാക്ടർ ആണെന്നാണ് തോ എൻ്റെ നിഗമനം ശരിയാണെങ്കിൽ ട്രാക്ടർ തന്നെയാണ് അതുപയോഗിച്ച് ആ മണ്ണിനെ എല്ലാം നന്നായിട്ട് ഇളക്കി മറിച്ച് അവിടെ വീണ്ടും പുതിയ കൃഷി ചെയ്യുമ്പോൾ ചെയ്യുന്നുണ്ട് അപ്പം ഈ ട്രാക്ടറുകൾ അവിടെ ഉപയോഗിക്കുന്നതുകൊണ്ടും മണ്ണിലുള്ള ഈ വേണ്ടാത്ത അംശങ്ങളെല്ലാം എടുത്ത് കളയാനും അതുപോലെ ഈ തടിയുടെ ഒക്കെ മുൻപ് നിന്ന റബ്ബർ തടി ഒക്കെ ആണെങ്കിൽ ആ റബ്ബർ തടിയുടെ ഒക്കെ വേരോടെ പിഴുത് കളയുമ്പോൾ ആ മണ്ണ് അവിടെ ഇളകി മറിയുന്നു എന്ന് മാത്രമല്ല വേര് അവിടെ കിടന്നുകഴിഞ്ഞാൽ റബ്ബർ കൃഷിക്കാർക്ക് പിന്നീട് അവർ റബ്ബർ വെട്ടാനും പാൽ എടുക്കാനുമൊക്കെ പോകുമ്പോൾ ആ കുറ്റി അവിടെ നിന്ന് ദ്രവിച്ച് പിന്നീട് അവിടെ വലിയ വലിയ ഹോളുകൾ രൂപപ്പെടും അപ്പോഴേക്കും അത് ഈ കൃഷിക്കും കൃഷിയുടെ പ് പിന്നെ അതിൻ്റെ പാലെടുപ്പ് പോലുള്ള അതിൻ്റെതായ ഗുണം എടുക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് ഇത്തരത്തിലുള്ള ഈ കുഴികളിലെ മനുഷ്യരുടെ കാൽ പെടാനും അതുമൂലം എന്തുവാ മ വീ മനുഷ്യർ വീഴാനും അങ്ങനെയുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഉള്ള ഒരു അവസരം അല്ലെങ്കിൽ ആ ഒരവസ്ഥ ഇല്ലാതാക്കുന്നതിന് ഇപ്പോഴത്തെ അ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ട്രാക്ടറുകൾ നല്ല രീതിയിൽ സഹായിക്കുന്നു കാരണം വേരുകളെല്ലാം മണ്ണിനടിയിലുള്ള വേരുകളെല്ലാം ഇളക്കി മറിച്ച് മേളിൽ ഇടുമ്പോഴേക്കും ആ ഭാഗം എല്ലാം ക്ലിയർ ആകുകയും മണ്ണുകൊണ്ട് മൂടുകയും ചെയ്യുന്നതിനാൽ നമുക്ക് പാ റബ്ബർ കൃഷി കഴിയുമ്പോൾ ആ റബ്ബർ കൃഷി ചെയ്തു കഴിഞ്ഞിട്ട് അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ റബ്ബറിൻ്റെ പാൽ ഉൽപ്പാദനവും അതുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഫലം എടുക്കാനായിട്ട് പോകുമ്പോഴേക്കും നമുക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ പോകാനും എല്ലാത്തിലും ഇന്നത്തെ ട്രാക്ടറുകളുടെ ഉപയോഗം വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട് അതിൽ കൂടുതലായിട്ട് ട്രാക്ടറുകളെ കുറിച്ച് ആ ഈ വയലിലെ കൃഷിയും ഈ കരയിലെ ഇത്തരത്തിലുള്ള കൃഷിക്കും ഒക്കെ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് മാത്രമേ എനിക്ക് അറിവുള്ളൂ പിന്നീടുള്ള ട്രാക്ടറുകളുടെ ഉപയോഗത്തെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല എനിക്ക് എൻ്റെ എൻ്റെ സംശയം ശരി ആണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ അറിവ് ശരി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ റോഡ് വർഷ് റോഡ് പണിക്കും ഇപ്പോൾ നേരത്തെ പറഞ്ഞത് പോലെ പ ക്വാറികളിലും ഒക്കെ ട്രാക്ടറുകൾ ഉപയോഗിക്കുന്നു എന്തൊക്കെയോ ട്രാക്ടറുകളുടെ ഉപയോഗം ആവശ്യമായി വന്നിരി വന്നിരിക്കുന്നൊരു സാഹചര്യമാണ് അപ്പം അതിനെ കുറിച്ച് എനിക്ക് നല്ല അറിവില്ല അത്രയും മാത്രേ അറിയൂ അപ്പോൾ ഇത്രയും മാത്രമാണ് എന്നെ എനിക്കുള്ള ട്രാക്ടറിനെ കുറിച്ചുള്ള എൻ്റെ അറിവ്